ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു നാലുമണിക്ക് എണീറ്റിട്ട് ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങും കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡെയ്ലി ഓടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റണ്ണിങ് പെർഫോമൻസ് ഒക്കെ കാഴ്ച്ചവയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എണീറ്റ് ഒരു നാലുമണിക്ക് എണീറ്റിട്ട് ഞാൻ ഇവിടുന്ന് തിരുനെല്ലി ആ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല രീതിയിൽ ഓടും അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ കാൽ കൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൈയ്യും കാലെല്ലാം നല്ല രീതിയിൽ വഴങ്ങാനും നമുക്ക് കുറച്ചും കൂടി ബ്രീതിങ്ങ് എഫിഷെൻസി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ ഓടിയാൽ മതി പിന്നെ രാവിലെയും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഉൻമേഷം നമ്മൾ ആരോഗ്യം നിലനി നല്ല രീതിയിൽ നിലനിൽക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഈ ഓട്ടം നല്ലൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മളത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ശക്തിയും നമ്മുടെ കൈ കാലൊക്കെ നല്ല രീതിയിൽ വഴങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ കാൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി പിന്നെ എന്നിട്ട് കാലൊന്ന് ഇങ്ങനെ കാലും കൈയ്യും കൂടെ കൂട്ടിമുട്ടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കാലും കൈയ്യൊക്കെ ഒരുമിച്ച് തന്നെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്